ആ ആ എന്താണ് വിളിച്ചത് ആ ആ ആ അതിന് എന്താ ആ ആ ഞണ്ട് ഉണ്ട് ഞണ്ട് ഒരു കിലോ മുന്നൂറ് രൂപ ആണ് ആ കൊഞ്ച് അഞ്ഞൂറ് രൂപ ആണ് നല്ല മീനാണ് നല്ല നല്ല ഫ്രഷ് മീൻ ആണ് ആ നമ്മൾ കടലിൽ നിന്ന് നേരിട്ട് ആ വില വില നിങ്ങൾക്ക് കുറച്ച് കുറച്ച് തരാം എന്നാൽ ആ ഉദ്ദേശം ആ ഇപ്പോൾ അഞ്ഞൂറ് രൂപ ആണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുറച്ച് തരാം നമ്മൾ നല്ല ഫ്രഷ് മീൻ ആണ് അപ്പോൾ വേറെയും ഇത് രണ്ടും മതിയോ കൊഞ്ചും ഞണ്ടും മതിയോ വേറെ മീൻ ഉണ്ട് ആ ആ ആ ഇപ്പോൾ നമ്മൾ നമ്മളെ കൈയ്യിൽ ചൂര ഉണ്ട് നല്ല പച്ച ചൂര ആണ് അത് പോലെ നെന്മീൻ ഉണ്ട് പിന്നെ കണവ ഉണ്ട് ഒരുപാട് മറ്റേ വല്യ വാള ഉണ്ട് അപ്പോൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല മീൻ നോക്കി വാങ്ങിക്കാം കേട്ടോ ആ ആ

ആ ആ ആ ആ

ഓ ഓ അതിന് എന്താ പക്ഷെ വന്നാൽ മതി നല്ല മീൻ ആണ് പിന്നെ അത് പോലെ തന്നെ നമ്മൾ നേരിട്ട് പോയി കൊണ്ട് വരുന്ന മീനാണ് അപ്പോൾ അതിനെ തന്നെ ആണ് ഇവിടെ ഉണക്കി ആ ഉണക്ക മീനും ഉണ്ട് ഉണക്ക മീന് വാള വാള കരുവാട് ഉണ്ട് ആ കൊഞ്ച് നത്തോലി കരുവാട് ഉണ്ട് പിന്നെ അയല ആ അത് ഒക്കെ ഉണ്ട് ചീലാവൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒക്കെ വാങ്ങിക്കുന്നോ

ആ ഇവിടെ നമ്മളാണ് ഉണക്കുന്നത് നല്ല വൃത്തി ആയിട്ടാണ് ഉണക്കുന്നത് അപ്പോൾ പിന്നെ ഒന്ന് ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മീൻ രണ്ടും പാക്ക് ചെയ്തോ പാക്ക് ചെയ്യട്ടോ രണ്ടും പ്രത്യേകം പ്രത്യേകം അല്ലേ പാക്ക് ചെയ്യാനുള്ളത് ആ അതിന് എന്താ നമ്മൾക്ക് രണ്ടും പ്രത്യേകം പ്രത്യേകം ആയിട്ട് എടുക്കണം അല്ലേ

ആ വില ആ ആ അത് ഇല്ല വിലയൊക്കെ കുറച്ച് തരാം വില നിങ്ങൾക്ക് ആയതുകൊണ്ട് ഇല്ല ഇല്ല ഇല്ല നല്ല ഫ്രഷ് മീനാണ് നിങ്ങൾക്ക് ആയതുകൊണ്ട് വില ഒക്കെ കുറച്ച് തരാം ആ വന്നാൽ മതി ഇനി നല്ല മീന് ആവശ്യം ഉള്ളപ്പോഴ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓ ശരി ഓക്കെ എന്നാൽ

ഓ ഓ ഓ ആ ആ ശരി എന്നാൽ ആ ആ